എൻ്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസം പരമ്പരാഗത ആചാരങ്ങളെ ഒന്നും കാര്യമായി ബാധിക്കാത്ത തരത്തിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് വിദ്യാഭ്യാ പണ്ടത്തെ വിദ്യാഭ്യാസരീതി എന്നു പറയുന്നത് നമ്മൾ പരമ്പരാഗതമായി ചെയ്ത് വന്നിരുന്നത് ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു അന്ന് കൂടെ പഠിക്കുന്നതോടുകൂടി തന്നെ എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും മാനിച്ച് കൊണ്ട് തന്നെയാണ് ഗുരുകുല വിദ്യാഭ്യാസം നടന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇന്നത്തെയൊരു കാലത്ത് അങ്ങനെയൊന്നും അല്ലാതിരുന്നത് കൊണ്ട് അല്ലാതിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുട വിദ്യാർത്ഥികളിൽ ആചാരങ്ങളോടുള്ള ഒരു താല്പര്യം കുറഞ്ഞ് വന്നതായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ അങ്ങനെ നോക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസം പരമ്പരാഗത ആചാരങ്ങളെ ചെറുതായി ബാധിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും